ഇപ്പോൾ ഞാന് ആദ്യം തൊട്ടേ വരയ്ക്കാനൊക്കെ ഒരു താല്പര്യം ഉള്ള ഒരു ആള് തന്നെ ആയിരുന്നു അപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിനും കാര്യങ്ങൾക്കൊക്കെ പണ്ട് പോയിരുന്നു അവിടുന്ന് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു അപ്പോൾ ഡ്രോയിങ് ക്ലാസ് പോലുള്ള ഇതിനൊക്കെ വരയെ പറ്റി കൂടുതൽ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാന് പ്ലസ് ടു വിന് ശേഷം സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ ഉള്ള കോഴ്സുകളാണ് എടുത്തത് അപ്പം അവിടുന്നാണ് എനിക്ക് മെയിൻ ആയിട്ട് ഞാന് എന്താ പറയുക കൂടുതലും ഹാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഈ പ്ലാനും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം നമ്മളെ ഓരോ ലൈനും അതിൻ്റെതായ തിക്കനെസ്സും കാര്യങ്ങളൊക്കെ വേണം എന്ന് പഠിച്ചത് അവിടുന്നാണ് കാരണം നമ്മള് തോന്നുന്നത് പോലെ വരയ്ക്കുക അല്ല ചെയ്യണ്ടേ അതിന് ഓരോ ലൈനും അതിൻ്റെതായ ഇത് ഉണ്ട് തിക്ക് ആയി വരയ്ക്കണ്ടതും നൈസ് ആയിട്ട് വരയ്ക്കണ്ടതും ലൈനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നു അപ്പം അതൊക്കെ നമുക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റിയ ഒരു വലിയൊരു കാര്യം തന്നെ ആയിരുന്നു ചില എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയിലൂടെ വേണം നമ്മള് വരയ്ക്കാൻ അപ്പോൾ ഓരോ ലൈൻസിൻറ്റേയും അർഥങ്ങള് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇതാക്കണം പിന്നെ നമ്മള് വരയ്ക്കുന്നതൊക്കെ നല്ല വൃത്തി ആണോ എന്ന് ചെക്ക് ചെയ്യണം അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആകാണ്ട് അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ലഭിച്ചിരുന്നു അപ്പോൾ എൻ്റെ വരെനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ അവിടുന്ന് തന്നെ എനിക്ക് നല്ലൊരു ഇത് ലഭിച്ചിരുന്നു